ഓ ഞാൻ ഒരുപാട് പ്രാവശ്യം മലയാളം ഇംഗ്ലീഷിലോട്ടും ഇംഗ്ലീഷ് മലയാളത്തിലോട്ടും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ് അതുപോലെ തന്നെ പിന്നെ ഡിക്ഷണറികളിൽ നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്കൂൾ ആവശ്യങ്ങള്ക്കും പിന്നല്ലാതെ വല്ല മെസ്സേജ് നോട്ടിഫിക്കേഷൻ അങ്ങനെയൊക്കെ വല്ല വല്ലതുമൊക്കെ വരും അപ്പോള് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയും അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ വല്ല പി ഡി എഫൊക്കെ ഇംഗ്ലീഷ് വരുമ്പോൾ അതിനെ മലയാളത്തിലോട്ടാക്കാൻ പിന്നെ മലയാളത്തിലുള്ള കാര്യത്തിന് മനസ്സിലാവാത്ത ചില മലയാള വാക്കുകൾ ഇംഗ്ലീഷിലോട്ടാക്കി അതെന്താണെന്നറിയാൻ പിന്നെ മലയാളത്തിലെ ഒരു സ്റ്റോറി അങ്ങനെയുള്ള ഇതൊക്കെ നമ്മള്ക്ക് ഇംഗ്ലീഷിലോട്ട് കൺവെർട്ട് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങള്ക്കാണ് ഞാൻ കൂടുതലും ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ ചില പ്രാവശ്യം ഇത് ബർത്ത്ഡേയ്ക്ക് വിഷ് ചെയ്യാനൊക്കെയായിട്ട് ഹിന്ദിയിലുമൊക്കെ ട്രാൻസ്ലേഷൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് മലയാളം ഇംഗ്ലീഷിലോട്ടും ഇംഗ്ലീഷ് മലയാളത്തിലോട്ടും ആണ് അത് കൂടുതൽ ഞാൻ ഉപയോഗിക്കാറുള്ളതും ഗൂഗിൾ ട്രാൻസ്ലേറ്ററുപയോഗിച്ചാണ് പിന്നെ കൂടുതൽ പിന്നെ യൂട്യൂബിലെ ലിങ്ക് യൂട്യൂബ് വീഡിയോസിലൊക്കെ ഉണ്ടാവുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഉള്ളതും പിന്നെ വല്ല പി ഡി എഫ് അങ്ങനൊക്കെയുള്ള നമ്മളെ ഗൂഗിളില്നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിനെ ചിലപ്പോള് മലയാളത്തില് ചിലപ്പോഴത് ഇംഗ്ലീഷിലായിരിക്കും ചിലപ്പോഴത് മലയാളത്തിലായിരിക്കും അതിനെ ലാംഗ്വേജിലോട്ട് മാറ്റാനായിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചില ഹിന്ദി ഫയലുകൾ അങ്ങനെ ഉള്ളതൊക്കെ ഇട്ടപ്പോള് അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടെടുത്ത് അതും ഗൂഗിളിലിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോള് ട്രാൻസ്ലേഷൻ എന്നു പറഞ്ഞാല് ഒരുപാട് ഭാഷ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രോജക്റ്റുകൾക്കായിട്ടും പിന്നെ ഇംഗ്ലീഷ് സ്റ്റോറികൾക്ക് സ്കൂളിൽ നിന്ന് മലയാളത്തിലോട്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോള് അത് ഞാൻ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്ലേറ്ററാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ് അപ്പോള് അതില്ക്കൂടെ ഒരുപാട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ മലയാളം കവിതകളും ഇതൊക്കെ കൂടെ ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഇതിലൊക്കെ ഞാന് ഇംഗ്ലീഷിലോട്ടൊക്കെ കുറേ പ്രാവശ്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങള് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ എൻ്റെ യൂസർനേമിടാൻ വേണ്ടി നമ്മൾ നമ്മളെ പേരുകളെ പല ലാംഗ്വേജിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യും കൊറിയൻ അറബ് ഹിന്ദി അങ്ങനെ പല ലാംഗ്വേജിലോട്ടും കൺവെർട്ട് ചെയ്തിട്ട് പലരും ഇടാറുണ്ട് അത് അതൊക്കെ കണ്ട് നമ്മളും ഇതേപോലെ ഉണ്ടാക്കി ഞാനും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൊറിയനാണ് ഞാൻ കൂടുതലും ഇട്ടിട്ടുള്ളത് പിന്നെ ഒരുപാട് പേർക്ക് അങ്ങനെ ഞാൻ ഇട്ടത് കണ്ടെൻറ്റേന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ പിന്നെ ഇപ്പോൾ പല കീബോർഡുകളിലും നമ്മള്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പോള് ഉപയോഗിക്കുന്നൊരു കീബോർഡിന്റെ അകത്തങ്ങനെ പറ്റും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും നമ്മള്ക്കിഷ്ടപ്പെട്ട ഭാഷയിലോട്ടു നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് നമ്മള്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിടാൻ പറ്റും അങ്ങനെ ഒരുപാട് യൂസ് യൂസുകൾ ഇപ്പോള് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പോള് ഒരുപാട് മേഖല പണ്ട് ഡിക്ഷണറി മാത്രമായിരുന്നു ട്രാൻസ്ലേഷന് നമ്മളുപയോഗിച്ചിരുന്നത് ഇപ്പോള് ഡിക്ഷണറി മാത്രമല്ല ഇപ്പോള് ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണെങ്കിലും പിന്നെ കീബോർഡിലാണെങ്കിലും അങ്ങനെ ട്രാൻസ്ലേഷനുണ്ട് ആ ഒരുപാട് സാങ്കേതികമായി ഇപ്പോള് ട്രാൻസ്ലേഷൻ ഇത് ഉണ്ട് പിന്നെ നമ്മൾ ആളുകളോട് ചോദിച്ചപ്പോള് അവര് നമ്മള്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തരും ഓരോ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാത്തോരോ ഭാഷകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പിന്നെ ഒരുപാട് ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് പല യൂസിനും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോള് ട്രാന്സ്ലേഷനെക്കുറിച്ച് എനിക്കിത്രയേ പറയാനുള്ളൂ